എൻ്റെ കയ്യില് ഞാൻ വായിക്കുന്ന അല്ലെങ്കില് ഞാനിപ്പോള് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഒരു സങ്കീർത്തനം പോലെ എന്നും പറഞ്ഞിട്ട് പെരുമ്പടവം ശ്രീധരൻ്റെ പുസ്തകമാണ് അതെനിക്ക് ഞാൻ രണ്ടാമത്തെ തവണ വായിക്കുകയാണത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ദസ്തേവിസ്കി എന്നു പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ശരിക്കുമുള്ള ശരിക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കാണിച്ചുതരുന്നൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പോകുന്ന പെരുമ്പടവം ശ്രീധരൻ എഴുതിയൊരു പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെയെന്ന് പറയുന്നത് പിന്നെ ഞാന് ഇപ്പോള് വായിച്ചുതീർന്നൊരു പുസ്തകമെന്നു പറയുന്നത് കാളി എന്ന് പറഞ്ഞിട്ട് യുവ എഴുത്തുകാരിയായിട്ടുള്ള ഒരു എഴുതിയതാണ് കാളി എന്നു പറയുന്നതും അശ്വതി ശ്രീ യുവ എഴുത്തുകാരിയായിട്ടുള്ള അശ്വതി ശ്രീകാന്ത് എഴുതിയതാണ് കാളി എന്നു പറയുന്നത് അവരുടെ വേറേെയും പുസ്തകങ്ങളുണ്ട് ഠായില്ലാത്ത മിട്ടായി അങ്ങനെയെക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളുണ്ട് ഞാനിപ്പോള് വായിച്ചത് കാളി എന്ന് പറഞ്ഞിട്ടൊള്ളൊരു പുസ്തകമാണ് അതും ഒമ്പത് പെൺ ജീവിതങ്ങള് കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് അത് ഉള്ളത് അതിന്റെയും എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് പിന്നെയുള്ളത് ഒരിക്കലെന്ന് പറഞ്ഞിട്ടൊള്ളൊരു പുസ്തകമാണ് അതും എൻ്റെ കയ്യില് അതെൻ്റെ കയ്യിലില്ല കൂട്ടുകാരീടെയ്യിന്ന് വാങ്ങിച്ച് അങ്ങനെ വായിച്ചതാണ് ഒരു പുസ്തകമാണിത് പിന്നെ ഇണ്ടാരിന്നത് എന്ന് പറയുമ്പഴത്തേക്കിനും നമ്മുടെ അത് മലയാളമല്ല അത് ആക്ച്വലി ഒരു ജാപ്പനീസ് പുസ്തകമാണ് സെന്നെന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് പുസ്തകമാണ് ജാപ്പനീസ് ഒരു ഗുരു എഴുതിയ പുസ്തകമാണ് സെന്നെന്ന് പറഞ്ഞിട്ട് അതിൻറ്റേയും ഹാഡ് കോപ്പി അവളുടെ കയ്യിലാണുള്ളത് പിന്നെ ഈ പുസ്തകങ്ങള് വായിക്കാൻ വാങ്ങിക്കുന്നത് കൂടുതലും ഞാൻ എനിക്ക് കൈ വെച്ച് വായിക്കാനാണ് ഇഷ്ടം അപ്പോള് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി പുസ്തകമായിട്ട് തന്നെയാ വാങ്ങിക്കുവാണ് ചെയ്യുന്നത് അതല്ലാണ്ട് നമ്മുടെ ഫോണിലൂടെയൊക്കെ വായിക്കുമല്ലോ അങ്ങനെ വായിക്കുകയല്ല നേരിട്ട് പോയി പുസ്തകം വാങ്ങി വായിക്കാറാണ് കൂടുതലും പതിവ് പിന്നെ ഉള്ളത് അല്ലാത രീതിയിലും വായിക്കാറുണ്ട് പിന്നേന്ന് പറയുവാണെന്നുണ്ടെങ്കില് ഫോണിലൂടെയും അതുപോലതന്നെ നമ്മുടെ ഓൺലൈൻ അങ്ങനെയും വാങ്ങിക്കാറുണ്ട് അതല്ലാണ്ട് നേരിട്ട് കടയില് പോയിട്ട് പുസ്തകം വാങ്ങിക്കാറുണ്ട് അങ്ങനെയും വാങ്ങിക്കാറുണ്ട് എനിക്ക് കൂടുതലും താല്പര്യം നേരിട്ട് കടയില്പ്പോയി പുസ്തകം വാങ്ങിക്കാനാണ് കാരണം ഒരു ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതില്നിന്ന് നമ്മളിങ്ങനെ തപ്പി തപ്പി തപ്പിപ്പോയി ഒരു പുസ്തകം കണ്ടെട് കണ്ടുപിടിച്ച് എടുത്ത് അത് വായിച്ച് തീർക്കുമ്പോള് കിട്ടുന്നൊരു സുഖം വേറൊന്നിനും കിട്ടത്തില്ല അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയി തപ്പിയെടുത്ത് വായിക്കാനായിട്ട് അപ്പോള് ഇതൊക്കെയാണ് അത്യാവശ്യം ക്ലാസിക് പുസ്തകങ്ങളും ഇംഗ്ലീഷ് കോപ്പി സ്പെഷ്യൽ എഡിഷനൊക്കെയായിട്ട് എൻ്റെ കയ്യിലുള്ളത് സ്പെഷ്യൽ എഡിഷനെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു നൂറാമത്തെ എഡിഷനാണെന്ന് തോന്നുന്നു എൻ്റെയ്യി ഇരിക്കുന്ന ആ ഒരു സങ്കീർത്തനം പോലെ ആണെന്ന് തോന്നു അങ്ങനെയെന്തോ അങ്ങനത്തൊരു സംഭവം കൂടെയുണ്ട് അതുപോലെ ഭയങ്കര അങ്ങനെ എനിക്ക് ഭയങ്കര പുസ്തകങ്ങളോട് എനിക്ക് അങ്ങനെ കുറച്ച് ഇഷ്ടം കൂടുതലുമുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ പോയി പലവിധത്തില് പുസ്തകം വാങ്ങി വായിക്കാറുണ്ട്